ഞങ്ങളുടെ ഈ പ്രദേശ പ്രശ പ്രശ പ്രദേശത്തെ പ്രശസ്തമായ സ്കൂളുകൾ ഡീപ്പോൾ സ്കൂളുണ്ട് പിന്നെ സെയിൻറ്റ് മേരിയ ഗോ മേരിയത് സ്കൂൾ പിന്നേ തോപ്രാങ്കുടി ഗവൺമെൻറ്റ് ഹൈ സ്കൂൾ ക്ലിയർ സ്കൂൾ തങ്കമണി വരിക്കാശ്ശേരി സ്കൂളുകളൊക്കെ വളരെ നല്ല സ്കൂളുകളാണ് ഡീപോൾ സ്കൂളിൽ അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളാണ് അവിടെ എല്ലാവിധ ആക്ടിവിറ്റീസുകളും കാരണം എല്ലാറ്റിനും ഫീസ് നമ്മൾ കൊടുക്കണം അന്നേരം പണക്കാർക്ക് പണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണമെന്നു താല്പര്യമുള്ളവർക്കും പോകാൻ പറ്റിയ സ്കൂളാണ് ഡീപോൾ സ്കൂൾ അതു പോലെ തന്നേ ഗവൺമെൻറ്റ് തോപ്രാങ്കുടി ഗവൺമെൻറ്റ് ഹൈ സ്കൂൾ ലൊക്കാലിറ്റിയിലുള്ള പിള്ളേർക്കും പിന്നവിടെ പ്ലസ് ടൂവുണ്ട് അപ്പം ദൂരെ നിന്നും കുട്ടികൾ വന്ന് തോപ്രാങ്കുടി ഗവൺമെൻറ്റ് സ്കൂളിലും പഠനം നടത്തുന്നുണ്ട് വളരെ നല്ല അദ്ധ്യാപകരും പിന്നെ സ്കൂളിൽ തന്നെയാണെങ്കിലും സ്കൂൾ ബസ്സുണ്ട് ഇപ്പം പിള്ളേർക്ക് പോകുന്നതിനും വരുന്നതിനൊക്കെ എളുപ്പമുണ്ട് പിന്നെ അദ്ധ്യാപകർ അങ്ങനെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും എല്ലാ കായിക മത്സ കലാകായിക മത്സരത്തിനെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യും അല്ല മിക്ക വർഷങ്ങളിലും നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ്റ് ഹൈ സ്കൂൾ ഓഫ് ഹൈ സ്കൂൾ തോപ്രാങ്കുടിയിലെ ഗവൺമെൻറ്റ് ഹൈ സ്കൂൾ അതുപോലെ സെൻറ്റ് മേരി അവിടുത്തെ സ്കൂളിൽ ഒന്ന് എൽ എൽ കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയേ ഉള്ളു പക്ഷേ സാധാരണക്കാരായ പിള്ളേർക്ക് നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി സാധാരണക്കാരായ ആൾക്കാർ ആൾക്കാരെല്ലാവരും കുട്ടികളെ സെൻറ്റ് മേരിയരുയത്തി സ്കൂളിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത് വളരെ നല്ല അദ്ധ്യാപകരും നല്ല വളരെ നല്ല പഠിപ്പീരുമാണ് എല്ലാ കുട്ടികളെ എല്ലാവരെയും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും മത്സ മത്സരങ്ങൾക്ക് പുറത്തു കൊണ്ടു പോകുകയും അതായത് സ്പോർട്സ് കായിക മത്സരത്തിനാണെങ്കിലും കലാ മത്സരത്തിനാണെങ്കിലും ഉപജില്ലാ മത്സരങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിന് എല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യും ഒരു കുട്ടിയെപ്പോലും മാറ്റി നിർത്തുകയില്ല നിങ്ങൾക്ക് ഒരു കഴിവില്ല അല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ലെന്നു പറഞ്ഞു മാറ്റി നിർത്തുകയില്ല എല്ലാ കുട്ടികളെയും ഒരു പോലെ കണ്ട് എല്ലാ കുട്ടികളെയും ഏതെങ്കിലും ഒരു പോഗ്രാമിൽ പങ്കെടുപ്പിക്കുകയും അവരുടെ പഠനത്തെയും ആരോഗ്യത്തെയും എല്ലാം അവർ വളരെ നന്നായി സ്കൂളുകളിൽ കൈകാര്യം ചെയ്യും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സ്കൂളിൽ സ്കൂൾ ബസ്സുണ്ട് അത് ഓരോ ട്രിപ്പ് കഴിഞ്ഞ് ഓരോ മേഖലയിലേക്കു വിടും അവിടുന്ന് കുട്ടികളെ കൊണ്ടു വരികയും കൊ തിരിച്ചു കൊണ്ട് വി കൊണ്ട് എത്തിക്കുകയും ചെയ്യും അതു പോലെ എല്ലാ മൂന്ന് ടേമിലും പി ടി എ കൂടും പി ടി എ കമ്മിറ്റി അംഗങ്ങളുണ്ട് സ്കൂളിൽ പൊതുവായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും ഇത് അതു കൊണ്ടൊക്കെ സ്കൂളിൽ നല്ല രീതിയിൽ പ്രവർത്തനം തുടർന്നു കൊണ്ടു പോകുന്നു അതു പോലെ മുരിക്കാശ്ശേരി തങ്കമണി സ്കൂളുകളും അവിടെ ഹൈ ഹയർ ക്ലാസ്സുണ്ട് പ്ലസ് ടു വരെയുണ്ട് ഈ സ്കൂളുകളും നല്ല രീതിയിൽ കലാകാ കലാപരമായിട്ടും കായികപരമായിട്ടും പഠനത്തിനും സ്കോളർഷിപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകളാണ് എസ് എൽ സിക്കും പ്ലസ് ടൂനെല്ലാം നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന സ്കൂളുകളാണ്